നമ്മൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര ഒക്കെ പോവുമ്പം ആരോഗ്യ നില നിര്ത്തണെങ്കിൽ നമ്മൾ നമുക്ക് ഇടക്ക് ഇടക്ക് വണ്ടി ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററ് കഴിയുമ്പോൾ വണ്ടീക്കൊന്ന് സൈഡാക്കി ജെസ്റ്റൊന്നെറങ്ങി ഒന്ന് കുറച്ച് ഒരു ചായയെ കുടിച്ച് അങ്ങനെക്കെ പോകാം പിന്നെ ഈ റൈഡിനെക്കെ പോവാണെങ്കിലും അത് ഹെവിയായിട്ടുള്ള ഫുഡ് ഒരുപാട് കഴിക്കാണ്ടിരിക്കുക പിന്നെ വയറിന് പിടിക്കുന്നത് കഴിക്കാൻ പിന്നെ നമ്മൾ ഈ വണ്ടി പോകുമ്പം നടുവേദന കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും കുറെ നേരം ഇരിക്കുമ്പോൾ ആണെങ്കില് നടുവേദന കൈ വേദന കാൽ വേദന ഒക്കെ ഉണ്ടാവുക അപ്പം ജെസ്റ്റ് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററ് കഴിയുമ്പം കുറേശ്ശെ കുറെ കുറച്ച് നേരം ഇരിക്കാൻ കുറച്ച് നേരം അങ്ങോടും ഇങ്ങോടും നടക്കുക അങ്ങനെ ഒക്കെ ചെയ്യാൻ തലവേദന ഓൾറെഡി ഉണ്ടാവും കാരണം ഹെൽമറ്റൊക്കെ വെക്കുന്നൊണ്ട് പിന്നെ പൊടി അടി പൊടി അടിക്കുന്നത് പിന്നെ മറ്റ് വണ്ടികളുടെ പുക അങ്ങനെ ഒക്കെ കാരണം തലവേദനേം കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും